ഹലോ ഞാനൊരു ഇസ്തിരിപ്പെട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീട്ടിലെത്തിയിട്ട് ഇസ്തിരി ഇടുവാൻ വേണ്ടിയിട്ട് ചൂടാക്കിയിട്ട് ചൂടാവുന്നെല്ലാം ഉണ്ട് നല്ലോണം ചൂടാവുന്നുണ്ട് പക്ഷേങ്കിൽ എത്ര ചൂടായിട്ടും ഇസ്തിരി ഇടുമ്പോൾ ഒരു ചുളിവ് പോലും ആ ഇസ്തിരിപ്പെട്ടിനെക്കൊണ്ട് പോവുന്നില്ല ഇത്രയും ഉപയോഗ ശൂന്യമായൊരു സാധനം ഞാനിതുവരെ വാങ്ങിയിട്ടില്ല സാധാരണ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പുതിയതിൽ എന്തായാലും ഒര് ഇതുണ്ടാവുമല്ലോ കുറച്ച് കഴിഞ്ഞാലല്ലേ അതിനെക്കൊണ്ട് പറ്റാണ്ടാവു ഇത് പുതിയ വാങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും ഇതിൻ്റെ